സാങ്കേതിവിദ്യയുടേയും ഇൻ്റർനെറ്റിൻറ്റേയും വളർച്ചക്കൊപ്പം മഴ മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങളെന്തൊക്കെയാണ് ഇപ്പം സാങ്കേതിവിദ്യകളുടേയും ഇൻ്റർനെറ്റിൻ്റെയും നമ്മള് പറയുമ്പോൾ പണ്ടത്തൊര് കാലഘട്ടം കാലഘട്ടം വെച്ച് നോക്കിയും സാങ്കേതികവിദ്യയും ഇൻ്റർനെറ്റും ഇപ്പത്തെ മലയാള ഭാഷയിൽ വളരെ അധികം ഒരു തിരിച്ചടിയാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് അത് നമ്മളത് നമ്മുടെ ലൈഫില് കാണുന്നതാണ് കാരണം അത് പറഞ്ഞ് വരികയാണെങ്കിൽ പണ്ടത്തൊര് കാലഘട്ടമെന്ന് പറയുമ്പോൾ മലയാള ഭാഷ ഒരു പ്യുവറായുള്ള ഒരു മലയാള ഭാഷയാണ് പണ്ടത്തെ ആൾക്കാര് സംസാരിച്ചു കൊണ്ടിരുന്നത് അവരങ്ങോട്ടുള്ള സംസാരങ്ങള് കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷനും മൊത്തവും മലയാളത്തിലായിരുന്നു ഇപ്പം നമ്മളിപ്പം സ്കൂൾലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒര് റിലേഷൻഷിപ്പിലായിക്കോട്ടെ നമ്മൾ കത്ത് വരെ മലയാളത്തിലാണ്

അപ്പം അതൊരു മലയാള ഭാഷയിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ് കാരണം ഇപ്പത്തന്നെ ഇൻ്റർനെറ്റുപയോഗിക്കുന്ന ഇപ്പത്തന്നെ നമുക്ക് കാണാവുന്നതാണ് എ ഐ ഇപ്പത്തൊര് ഏറ്റവും വലിയ മലയാള ഭാഷയെ തിരിച്ചടിക്കുന്നൊരു സംഭവാണ് എ ഐ ഇപ്പത്തെ പുതിയ യുവജനങ്ങൾക്ക് മലയാളം വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അറിയത്തില്ല അത് അപ്പഴേ എ ഐക്ക് കണ്ടൻ്റയച്ച് കൊടുക്കുക അപ്പഴ് കാര്യങ്ങള് അതിനുള്ള വിവരങ്ങള് എല്ലാം മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷായിക്കോട്ടെ ഏത് ഏത് ലാംഗ്വേജ് വേണോ അതിനു ള്ള ലാംഗ്വേജ് കാര്യങ്ങളവര് തരും ആ ഒര് കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മള് ജീവിക്കുന്നത് ഇപ്പം ഈ മലയാളം എന്ന ഭാഷയിൽ നിന്ന് വളരെ അധികം ഒരു തിരിച്ചടിയാണ് ഈ ഇൻ്റർനെറ്റ് നമുക്ക് കൊണ്ടുവരുന്നത് കാരണം ഇപ്പം നമുക്ക് ഫോണുകളുണ്ട് വിളിച്ച് സംസാരിക്കാൻ ഫോണുകളുണ്ട് അല്ലേൽ തന്നെ ഇപ്പം പണ്ടൊക്കെയാണേൽ കത്തെഴുതി മലയാളത്തിൽ കത്തെഴുതി കൊടുക്കുക അങ്ങനത്തെ ഒരു ശൈലിയാണ് പണ്ടത്തേ ആൾക്കാര് ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ മലയാളമായിരുന്നു പണ്ടത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പത്തെ ഒരാള്ണ്ടാക്മ്പം പിള്ളാരൊക്കെ ഇപ്പം ഏറ്റവും നമക്കേറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു പല ആൾക്കാരും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് അവിടെ അവരുടെ പിള്ളേര് അവിടുത്തെ അവരുടെ കുട്ടികള് അവിടുത്തെ സിറ്റിസണായിട്ടാണ് വളരുന്നത് അപ്പം അവർക്ക് എന്താണ് മലയാളം മലയാളം എന്നുള്ള ഭാഷ ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയാതെയാണ് അവൾ വരുന്നത് കാരണം അവർ മാതാപിതാക്കൾ മലയാളികളായിരിക്കാം അവര് മലയാളി അവര് പഠിച്ച് വളർന്ന മലയാള ദിവസം സ്കൂളിൽ നിന്നായിരിക്കാം എന്നിട്ട് പോലും പിള്ളേര് അവര് സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ട് പിള്ളേരും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും മലയാളം എന്നൊരു ഒരു മലയാളി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാട് മലയാളം മലയാളിയാണ് പക്ഷേ സംസാരിക്കുന്നത് മൊത്തം ഇംഗ്ലീഷിലാണ് അപ്പം ആ വന്നൊരു മാറ്റങ്ങള് അത് വളരെ ഒരു മാറ്റം ഇപ്പം പല യുവജനങ്ങള് പോലും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് അവര് മലയാളം എന്നൊരു ഭാഷ മാറ്റി ഇംഗ്ലീഷ് എന്നൊരു ഭാഷയാക്കി വീട്ടുകയാണ് കാരണം കാരണം എന്ത് ചോദിക്കുവാണെങ്കിൽ അവിടെ എത്തുമ്പോൾ പുതിയൊര് ലൈഫ് സ്റ്റൈൽ പുതിയ കോളേജ് ഇംഗ്ലീഷ് മീഡിയം എല്ലാം പുതിയ കൂട്ടുകാരെല്ലാം പുറത്ത് നിന്ന് വന്ന കൂട്ടുകാർ അപ്പം നമുക്ക് മലയാളം എന്നൊര് ഭാഷ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിനുപരിയാണ് നമ്മള് മലയാള ഭാഷകളുപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം മലയാളം ഫ്രണ്ട്സോ അല്ലെങ്കിൽ മലയാളികളോ അവിടെ ഇല്ല അപ്പം നമ്മളവിടെ മലയാളം എന്നൊരു ഭാഷ ഉപയോഗിക്കെണ്ടൊരാവശ്യം നമ്മൾക്ക് വരുന്നില്ല അങ്ങനെയാണിപ്പം പണ്ടത്തെയൊക്കെ അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നതാണിപ്പം ഇഷ്ടംപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഈ ഒരു കാലഘട്ടത്ത് വളർന്ന് വരുന്നൊരു ലോകമാണ് നമ്മുടെ കാരണം മലയാളം എന്ന ഭാഷ തള്ളി മാറ്റി ഇംഗ്ലീഷെന്നൊര് ഭാഷ വരികയാണ് കാരണം ഇംഗ്ലീഷ് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇതുണ്ട് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിച്ചാൽ മാത്രവേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ എന്നൊരു വ്യക്തിപരമായി ഒരു ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷ് എന്നൊരു ഭാഷ വളരെ നിർബന്ധമാണൊര് മനുഷ്യന് ജീവിതത്തിൽ പക്ഷേ അതിനുപരിയായി ഇപ്പം ഒരു ബാങ്കിലോ വല്ല കാര്യങ്ങള് പോയി നമുക്കൊരു ഫോം ഫിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മലയാളത്തിൽ ഒരു പ്രസംഗം പറയണമെങ്കിൽ അതിനെ പറ്റി യുവജനങ്ങൾക്കതിനൊന്നും സാധ്യമാകാൻ പറ്റുന്നില്ല കാരണം അവര് പഠിക്കുന്നത് എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവര് മലയാളമെന്നൊര് പഠിക്കുന്നില്ല കൂടി പോയാൽ അവര് സ്കൂൾ ജീവിതത്തിലാപ്പാടെ രണ്ടോ മൂന്നോ വർഷവാണ് മലയാളം എന്നൊരു ഭാഷ പഠിക്കുന്നത് തന്നെ അതിൽ നിന്ന് നമുക്ക് ഈ മൂന്ന് വർഷം നമുക്ക് മലയാളമെന്ന ഭാഷ എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാന്നുള്ള കാര്യമേ ഉള്ളു ഇപ്പൊരു വിദ്യ ഇപ്പൊരു ഇപ്പത്തെ ഒരു കുട്ടികൾക്ക് ബാങ്കിൽ പോയി എങ്ങനെ ഒരു ഫോം ഫിൽ ചെയ്യണമെന്നോ അല്ലേൽ ഒരു ബാങ്കില് എങ്ങനൊര് ലെറ്റർ എഴുതി കൊടുക്കണമെന്നോ എന്നൊരു വ്യക്തമായൊര് ധാരാണ ഇപ്പത്തെ ഒരു യുവജനങ്ങൾളില് നമ്മൾ കണ്ട് കിട്ടുന്നില്ല കാരണം മെയിനായിട്ട് നമ്മള് പറയുകയാണേൽ തന്നെയാണെങ്കിൽ ഇപ്പം എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് കാരണം ഇപ്പം ഇപ്പം സ്കൂളുകളിലാണേൽ തന്നെന്നുണ്ടെങ്കില് ഇംഗ്ലീഷിലാണ് കാര്യങ്ങള് പഠിപ്പിക്കുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഓരോ ഇംഗ്ലീഷുകളിലാണ് ഇംഗ്ലീഷിലാണ് കാര്യങ്ങള് മൊത്തം ഇപ്പം ചില സ്കൂളുകളിൽ ഞാൻ കണ്ട് വളർന്ന സ്കൂളുകളിൽ എല്ലാം മലയാളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ ഉണ്ട് അപ്പം അപ്പോൾ അപ്പൊക്കെ ഫൈനടിക്കുമെന്ന് മലയാളം എന്നൊരു ഭാഷയെ തന്നെ നമ്മള് മറക്കുകയാണ് അപ്പം അപ്പം ആ ഒരു കാലഘട്ടത്ത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ കാരണം ഇപ്പം ഒരു ഒരു സാഹചര്യ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് മൂന്നര വരെ സ്കൂളുകളാണ് ആ സ്കൂളിൽ നമ്മള് സംസാരിക്കുന്നത് മലയാളം സംസാരിച്ചാൽ ഫൈൻ കിട്ടും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത് ആ ഒരു പിന്നെ നമുക്ക് മലയാള ഭാഷ സംസാരിക്കാൻ പറ്റുവെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാലഘട്ടം നമ്മള് വളർന്ന് വരുന്ന അല്ല ഈ ഒര് കാലഘട്ടം ഇപ്പം നമ്മൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം സംസാരിക്കുന്നതെന്ന് രാവിലെ ഇപ്പം നമ്മള് പഠിക്കുവാണേൽ തന്നെന്നുണ്ടെങ്കില് പുസ്തകത്തിൽ തന്നെ നമ്മള് മൊത്തം ഇംഗ്ലീഷ് കാര്യങ്ങളാണ് പഠിക്കുന്നത് ആ ഒര് സാഹചര്യത്തിൽ നമ്മള് എന്ത്കൊണ്ട് നമ്മൾ കൂടിപ്പോയാൽ മാതാപിതാക്കളോട് ഇപ്പത്തെ യുവജനങ്ങളാണ് മതാപിതാക്കളോട് സംസാര കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒര് കാലഘട്ടമാണ് കാരണം ഫോണിലാണ് കാരണം ഇപ്പം ഇൻസ്റ്റഗ്രാമായിക്കോട്ടെ ഫേസ്ബുക്കായിക്കോട്ടെ ഇപ്പം മൊത്തം നമുക്കോരോ ലാംഗ്വേജാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാം മൊത്തം ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് കാര്യങ്ങള് മൊത്തം വരുന്നത് ഫോണിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷാണ് നമുക്കൊരു ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റത്തുള്ളു കാരണം ഇപ്പം നമുക്ക് സ്കൂളിൽ തന്നെ നമുക്ക് മനസിലാക്കി ഫീഡ് ചെയ്ത് തരുന്ന കാര്യങ്ങള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂ ഷുഡ് മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് കാരണം പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ബേസ്ഡ് വേണം എല്ലാവരും പറയും ടീച്ചേഴ്സ് എല്ലാം പറയും മലയാളം നിങ്ങൾക്ക് ഒന്നും തരാനില്ല ബട്ട് ഇംഗ്ലീഷ് ഗിവ്സ് യു മോർ എന്ന് പറയും അതിൻ്റെ അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് പോവും കാരണം നമ്മള് ചിന്തിക്കും മലയാളം പഠിച്ചിട്ട് കാര്യം ഇല്ല ഒന്നും നമുക്ക് നേടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഒബ്വിയസ്ലി ഇംഗ്ലീഷ് പഠിക്കും നമ്മള് അങ്ങനെയാണ് ഇപ്പത്തെ ഒരു യുവജന ഇപ്പത്തെ ഒരു കാലഘട്ടം മലയാളം എന്നൊരു ഭാഷ തന്നെ മറന്ന് തുടങ്ങാനുള്ള കാരണം കാരണം നമ്മളെപ്പഴും പറയും നമ്മുടെ മദർ ലാംഗ്വേജ് മദർ ടങ്ക് മലയാളമാണ് ശരിയായിരിക്കാം പക്ഷേ ഇപ്പത്തെ യുവജനങ്ങൾ ചിന്തിക്കുന്നത് മലയാളം പഠിച്ചിട്ട് എന്തിന് അത് നമുക്ക് എന്തെങ്കിലും തരുമോ ബട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അല്ല അങ്ങനെ ഒര് കാലഘട്ടത്തിലാണിപ്പം നമ്മളിപ്പം ജീവിക്കുന്നത്